ഹലോ ഗ്രീൻ ഹില്സ് പബ്ലിക് സ്കൂള് ഇത് ആരാണ് സംസാരിക്കുന്നത് എത്രാം ക്ലാസ്സിലേക്കായിരുന്നു ഓക്കെ ഇവിടെ ഡൊണേഷൻ ഫീയ് ബസ് ഫീയ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ആ കൺഫേം ആണോ ഇവിടെ ചേർക്കുന്ന കാര്യം ഓക്കെ അപ്പം നമ്മുക്ക് ഡോണേഷൻ വരുന്നത് എൽ കെ ജിയിലെക്കാണെങ്കിൽ പത്താണ് കേട്ടോ ആ ഒരു കുട്ടിക്ക് എൽ കെ ജിയിലേക്കുള്ള ഒരു കുട്ടീൻ്റെ ഡൊണേഷൻ പത്തും പിന്നെ ട്യൂഷൻ ഫീ വരുന്നത് പതിനഞ്ചാണ് അപ്പോൾ ടോട്ടല് ഇരുപത്തഞ്ച് രൂപ വരും ഇതിൻ്റെ ഇതിൽ പിന്നെ നമ്മുടെ ബുക്ക് ഫീയും പിന്നെ ഡ്രെസ്സ് അതായത് യൂണിഫോം ബെൽറ്റ് അതിൻ്റെയൊക്കെ പൈസാ എക്സ്ട്രാ തരണം ഇതിൽപ്പെടുന്ന അല്ലാ ഇതിൽ ആകെ വരുന്നത് ഡൊണേഷനും പിന്നെ ട്യൂഷൻ ഫീയുവാണ് അപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിൽ ഇരുപതിനായിരം രൂപ നമുക്ക് ഡൊണേഷൻ വരുന്നുണ്ട് പതിനഞ്ച് നമുക്ക് ട്യൂഷൻ ഫീയും വരുന്നുണ്ട് ബസ്സ് പിന്നെ ബസ്സ് ചാർജ്ജ് നമുക്ക് ആ ബസ്സിൻ്റെ ആൾക്കാരുവായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഇതാവും ഒരു സ്ഥലത്തേക്ക് എത്ര രൂപാ നിരക്ക് അങ്ങനെയാണുള്ളത് അപ്പം നിങ്ങളെവിടെയാണ് സ്ഥലം പറഞ്ഞത്

ഓക്ക് ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം നമുക്കവിടുന്ന് ഒരധികം ദൂരം ഇല്ലല്ലോ അപ്പം കൊ അധികം പൈസയൊന്നും വരില്ല ഒരെ എഴുന്നൂറ് രൂപയൊക്കയേ മന്തിലി വരുവൊള്ളൂ ആ പിന്നെ

യൂണിഫോമിന് നമ്മൾ ഉസ്കൂള് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയു എത്ര രൂപയാവും എന്ന് അതിനനുസരിച്ച് ഇതാക്കിയാൽ മതി ബുക്കിനൊള്ളതും അപ്പം തന്നെയാണ് പറയുന്നത് ഐ സി ഐ സി സി ബി എസ് ഇ സിൽബസ് സി ബി എസ് ഇ സിലബസാണ് അപ്പം ബുക്ക് നമുക്ക് പിന്നെ കുട്ടികൾടെയൊക്കെ ഇതനുസരിച്ച് നമ്മൾ ഓഡറ് ചെയ്യാ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഡൊണേഷനും പിന്നെ ഫീ മുഴുവൻ അതായത് ട്യൂഷൻ ഫീ മുഴുവൻ കംപ്ലീറ്റ് തരാനില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പോലെ വാങ്ങും പിന്നെ തന്ന് തീർത്താൽ മതി ഒരു മൂന്ന് ഇതായിട്ട് തന്ന് തീർത്താൽ മതി ഓക്കെ അങ്ങനെയായാലും മതി